തീർച്ചയായും കേരളീയ ഭക്ഷണ രീതിയും പാചകവും അടിമുടി മാറുക തന്നെയാണ് പണ്ടു മുതലുള്ളതിൽ നിന്നും ഇപ്പോഴത്തേത് വ്യത്യസ്തമാണ് ഭക്ഷണവും പാചകവും മറ്റും ഒട്ടേറെ വ്യത്യസ്തമായ കാര്യങ്ങളാണിപ്പോൾ ആളുകൾ ഭക്ഷണം പാകം ചെയ്യുകയും പുതിയതായി ഓരോന്ന് കണ്ടെത്തുകയും അത് മറ്റുള്ളവരിലെത്തിക്കുകയും ഇപ്പോൾ ഹോട്ടൽ ഹോട്ടലുകളിലോരോ ഭക്ഷണവും മറ്റും കാര്യങ്ങൾ എല്ലാം ഓരോരുത്തരിലേക്ക് പുതിയ പുതിയ രീതിയിലാണെത്തിക്കുകയും ഓരോ സ്പ പുതിയ പാചക രീതിയാണ് ഓരോരുത്തർ കണ്ടു പിടിക്കുന്നത് ഭക്ഷണ രീതിയുടെ മാ പൊതുവേ ഉള്ള മാറ്റങ്ങളും മറ്റും പണ്ടത്തെക്കാളും ഒരുപാട് വ്യത്യസ്തമായ ഫുഡ്ഡുകളും മറ്റും കാര്യങ്ങളും എല്ലാം നിലവിൽ വരുന്നുണ്ട് പുതിയ പുതിയ മാറ്റങ്ങളും ഓരോ പാചകത്തിൻ്റെയും രീതിയും ശൈലിയും ആളുകളുടെ ശൈലിയും ഹോട്ടലുകളിൽ നിന്ന് ഫുഡ് മേടിച്ചാലും പണ്ടത്തേ നിന്ന് ഒട്ടേറെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതിയും ഭക്ഷണ ശൈലിയും എല്ലാമാണ് ഉള്ളത് കൂടുതലായും ആളുകൾ ഇപ്പോഴത്തെ പുതിയ പുതിയ ട്രെൻഡ് പുതിയ പുതിയ ട്രെൻഡുകൾ അഥവാ പുതിയ പുതിയ സാഹചര്യങ്ങളിൽ പുതിയ പുതിയ ഫുഡ്ഡുകളും മറ്റും ആളുകൾ ചെയ്യാറുണ്ട് പിന്നെ വളരെ കേരളീയ ഭക്ഷണ രീതി പാചകം വളരെ വ്യത്യസ്തമായിട്ട് അടിമുടി മാറി എന്നു തന്നെ വേണേ പറയാം ഒരുപാട് വ്യത്യസ്തമായ രീതിയിലുള്ള പുതിയ ശൈലിയും പുതിയ സ്പെഷൽ ഫുഡ്ഡുകളും മറ്റും ആളുകളിപ്പോൾ കഴിക്കുന്നതു കൊണ്ട് ആളുകൾ അതിൻ്റെ രുചി അറിയുകയും ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും പലതരം ഫുഡ്ഡുകളും വെറൈറ്റി ഫുഡ്ഡുകളും മറ്റും നമുക്ക് കഴിക്കാനും കാണുവാനും എല്ലാം സാധിക്കുന്നുണ്ട് വെറൈറ്റി ആയിട്ട് ഓരോ ഇപ്പം ഇപ്പം നമ്മടെ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്കു പോകുമ്പോൾ അവിടുത്തെ വെറൈറ്റി ഫുഡ്ഡുകളും നമുക്ക് ആസ്വദിക്കാനും കഴിക്കുവാനും സാധിക്കുന്നുണ്ട് ഒട്ടേറെ മാറ്റങ്ങളാണ് ഇതിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത് വളരെയധികം വ്യത്യസ്തമായ രീതിയിലുള്ള ഫ ഭക്ഷണവും അതായത് ഓരോ ജില്ലയിൽ വ ഇപ്പോൾ ഒരു നമ്മുടെ സ്ഥിരം ഭാഷയെ തന്നെ ഉദാഹരണമായിട്ടു പറയാൻ സാധിക്കും ഇപ്പം നമ്മുടെ ഈ ജില്ലയിൽ നമ്മൾ പറയുന്ന ഭാഷ ആയിരിക്കില്ല മറ്റൊരു ഭാഷയായിട്ട് അടുത്ത ജില്ലക്കാർ പറയുന്നത് നമുക്കത് പൊതുവേ മനസ്സിലാകണമെന്നില്ല എന്ന പോലെ തന്നെയാണ് ഫു ഭക്ഷണത്തിൻ്റെ ശൈലിയും ഇപ്പം നമ്മളൊരു നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു ഫുഡ് മേടിച്ചു കഴിച്ചു എന്നിട്ട് മറ്റൊരു നാട്ടിലേക്ക് ആ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് ടേസ്റ്റ് വ്യത്യാസമുണ്ട് പിന്നെ കൂടുതലായും കേരളത്തിൽ പൊതുവേ നല്ല വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത് പഴയ ഒരു ഫുഡ് ആഹാര ശൈലിയല്ല ഇപ്പം പുതിയതായിട്ട് പുതിയ സ്പെഷ്യൽ ആഹാരങ്ങളും ഒരുപാട് വെറൈറ്റി ഫുഡ്ഡുകളും മറ്റും എല്ലാം ഇപ്പോൾ നിലനിൽക്കുന്നതു കൊണ്ട് ഒട്ടേറെ ഓരോ നാട്ടുകളിൽ ചെല്ലുമ്പോഴും ഒട്ടേറെ വെറൈറ്റി ഫുഡ്ഡുകളും മറ്റുമാണ് നമുക്ക് കഴിക്കാൻ സാധിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ആഹാരശൈലിയും വെറൈറ്റി ഫുഡ്ഡുകളും കേരളീയ ഭക്ഷണ രീതിയും പാചകവും അടിമുടി മാറിയെന്നെനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് പണ്ടുള്ളതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തപ്പെട്ട ഫുഡ്ഡുകളും മറ്റും ആണിപ്പോൾ ആൾക്കാർ രു രുചിക്കുകയും പണ്ടുള്ള ഫുഡ്ഡുകൾ ആൾക്കാർ രുചിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കുറവാണ് ഇപ്പോൾ ഒട്ടേറെ വെറൈറ്റി ഫുഡ്ഡുകളിലേക്ക് ആൾക്കാരത് അന്വേഷിച്ചു പോകുകയും തപ്പിപ്പോകുകയും അതു കിട്ടുന്ന ഓരോ സ്ഥലങ്ങൾ ആൾക്കാർ കണ്ടെത്തുകയും മറ്റും ചെയ്യുന്നുണ്ട് പണ്ടുള്ളതിൽ നിന്ന് ഒരുപാട് മാറ്റം ഫുഡ് കൊടുക്കുന്നതിൽ നിന്നും ഫുഡ് കഴിക്കുന്നതിലും കേരളത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ എവിടെ ചെന്നാലും എവിടെ ചെന്നു കഴിക്കാൻ കേറിയാലും ഒരുപാട് വെറൈറ്റി ആഹാരങ്ങളും മറ്റും ചിലപ്പോൾ ചിലതൊന്നും നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നാൽ ചിലതെല്ലാം നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യാറുണ്ട് ഒരുപാട് വെറൈറ്റി ഫുഡ്ഡുകളെല്ലാം നമ്മൾ കഴിക്കാനും നമുക്കത് ആസ്വദിക്കാനും സാധിക്കുന്നുണ്ട് പിന്നെ പൊതുവേ പറയുകയാണേ ഒരേ കുറേ മാറ്റങ്ങൾ സംഭവിക്കുകയും ക്കുകയും ഇതിൽ നിന്നു നമ്മളെ ഒരുപാട് വെറൈറ്റി ആഹാരങ്ങളിലേക്ക് ആളുകൾ എത്തിപ്പിക്കുകയും ക്കുകയും അത് കഴിക്കാനുള്ള നമ്മുടെ ഓരോ നമ്മുടെ എന്ത് പറയുക നമുക്കത് കഴിക്കാൻ സാധിപ്പിക്കുകയും ചില ഫുഡ്ഡുകൾ നമുക്കത് നമുക്ക് കഴിക്കാൻ തോന്നിപ്പിക്കുകയുമെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് മാറ്റം പണ്ടത്തെക്കാളും ഇപ്പോൾ സംഭവിച്ചിട്ടുമുണ്ട് ഫുഡ്ഡുകൾ ആയാൽപ്പോലും ഒരുപാട് ഫുഡ്ഡിൻ്റെ ശൈലി അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഇതെല്ലാം ആൾക്കാർ രുചി അറിഞ്ഞ് കഴിക്കുവാനും എല്ലാ ആള് ആളുകൾക്ക് സാധിക്കുന്നും ഉണ്ട് ഒട്ടേറെ മാറ്റങ്ങൾ അടിമുടി മാറുകയും ഫുഡ്ഡിന് അടി ഫുഡ്ഡിന് അടിമുറി മാറ്റങ്ങൾ സംഭവിക്കുകയും ഇവയെല്ലാം സാധിച്ചിട്ടുമുണ്ട് കേരളത്തിലെ പണ്ടത്തെ ശൈലിയിൽ നിന്നു വളരെ വ്യത്യസ്തമായ ശൈലിയാണിപ്പോൾ നിലനിൽക്കുന്നതും എന്നാൽ ഫുഡ് ഫുഡ്ഡിൻ്റെ മാറ്റവും ആളുകൾക്ക് അത് ആളുകളെ എത്രമാത്രം പ്രീതിപ്പെടുത്താമെന്നും നോക്കി ഒരുപാട് കച്ചവടവുമായാൽ പോലും അതിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടുണ്ട് കൂടുതലും ഭാഷ ഭാ ഭാഷയല്ല ഭക്ഷണം ഒരുപാട് കേരളത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ആളുകളത് കൂടുതലായി കഴിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യാറുള്ളത് പൊതുവേ കേരളീയ ഭക്ഷണരീതി പാചകം അടിമുടി മാറുകയും പാചകം ആൾക്കാർ കൂടുതൽ വെറൈറ്റിയായിട്ടും ചെയ്യുവാനും ശ്രമിക്കാറുമുണ്ട് ആളുകളിലേക്ക് ഒരുപാട് രീതിയിൽ പല വെറൈറ്റി ഫുഡ്ഡുകൾ മനുഷ്യരെത്തിക്കുകയും ഇപ്പം പണ്ടത്തേതിൽ നിന്ന് ഒട്ടേറെ വ്യത്യസ്തമായി ഇപ്പം മാറ്റം സംഭവിച്ചിട്ടുണ്ട് അത് പറയാനുള്ള കാരണമെന്തെന്നാൽ പൊതുവേ പണ്ടത്തെ ഫുഡ് കഴിക്കുന്നവരും ഉണ്ട് എന്നാലിപ്പം കൂടുതൽ വെറൈറ്റി ആയിട്ട് ആഹാരം കിട്ടുകയും അത് കഴിക്കാനാൾക്കാർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെയാണിതിൻ്റെ ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഒട്ടേറെ വളരെ പണ്ട് കാലങ്ങളിൽ നിന്ന് ഫുഡ്ഡിൽ കേരളത്തിൽ വളരെ നല്ല വ്യത്യസ്തമായ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളതും എനിക്ക് തോന്നുന്നതും